ഫുഡ് ഫിഷ് മാർട്ട് അല്ലെ ഞാൻ രാവിലെ വിളിച്ച് ഒരു അഞ്ച് അഞ്ച് കിലോ മീൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജിബിൻന്ന് പറയുന്ന ആൾ അത് തന്നെ അപ്പോൾ ഞാനിപ്പോൾ വിളിച്ചത് നമുക്ക് വേറെ അവിടെ എന്തൊക്കെ ഫിഷ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ആയിരുന്നു ഓക്കേ ഓക്കേ അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടിട്ടാണ് അപ്പം ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാൻ ഉള്ള ഒരു സെറ്റപ്പാണ് നോക്കുന്നത് അപ്പം ഞങ്ങൾക്കൊരു അപ്പം അഞ്ച് കിലോയുടെ കൂടെ തന്നെ ഒരു നമ്മുടെ അവിടെ ഈ കൊഴുവ ഉണ്ടോ കൊഴുവ ഇല്ലേ നെത്തോലി പോലത്തെ ചെറിയ മീനില്ലേ നമുക്ക് വറക്കാൻ പറ്റുന്നത് അങ്ങനത്തെ മീനുണ്ടോ ആണല്ലെ അപ്പോൾ ഓകെ ഓകെ ഓകെ ഓകെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സാൽമാണ് പ്രോൺസ് പിന്നെ പ്രോൺസ് അല്ല കൊഞ്ചല്ലേ പ്രോൺസ്ന്നു ഉദ്ദേശിക്കുന്നത് ആ ഓകെ അത് പിന്നെ ക്രാബസ് അത് മൂന്നും ഓരോ കിലോ സപ്രറ്റൊന്ന് പാക് ചെയ്ത് വെച്ചേക്കാവോ ഞാൻ ആ ഓരോ കിലോ ആ സെപ്പറേറ്റ് ആക്കി വേക്കണെ സെപ്പറേറ്റ് ആക്കി വെക്കണം മിക്സ് ചെയ്ത് വെക്കല്ലേ നമുക്ക് ആത് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് ആവുലോ അത് കൊണ്ട് നമുക്ക് അത് സെപ്പറേറ്റ് ചെയ്ത് തരുവണെങ്കിൽ ആ അല്ലല്ല സാൽമണും അതെല്ലാം നിങ്ങൾ അല്ല സാൽമണും നമ്മുടെ പ്രോൺസും ക്ലീൻ ചെയ്തോ പിന്നെ ക്രാബ്സ് ക്ലീൻ ചെയ്യണ്ട അത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ കട്ട് ചെയ്ത് എടുത്തോളാം ആ ഓ ആ ഓക്കെ ഓക്കേ ഓക്കേ ഓക്കേ നോ പ്രോബ്ലം അത് ഞാനിപ്പോൾ വാട്സപ്പ് അല്ല ഗൂഗിൾ പേ ചെയ്തേക്കാം ക്രാബ്സ് ഒരു കിലോ ഓക്കേ ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടവോ അതോ ആ ഓക്കെ ചെയ്യാം ചെയ്യാം ആയ് അല്ല അതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത് കിലോമീറ്ററിന് ആണോ അതോ ഇത്ര ഡിസ് ആ ഓക്കേ ഓക്കേ കുഴപ്പമില്ല അതു കൊടുത്തേക്കാം അത് അവിടെ വരുമ്പം പേ ചെയ്താൽ മതിയോ അതോ അവരുടെ കയ്യിൽ ഇപ്പോൾ കൊടുത്ത് ഇതിൻ്റെ കൂടെ പേ ചെയ്താൽ പോരെ ആ ഓക്കെ ഓക്കെ ഒക്കെ ഓ എന്തോ അന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണോ ഓക്കേ ഓക്കേ കൊടുത്തു ഞാൻ വിട്ടേക്കാം നോ പ്രോബ്ലം

ഓക്കേ ഓക്കേ ഞാനത് ഗൂഗിൾ പേ ചെയ്തേക്കാം വേറൊന്നും വേണ്ട അത് മതി ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്തോളാം ടൃുണ ഫിഷ് ഇപ്പോൾ നമ്മൾ ആരും അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം ഹെവിയായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് വേറെ എന്തേലും എൻക്വയറിസ് വരുവാണെങ്കിൽ ഞാൻ വിളിച്ചേക്കാം വേറെ നമ്മുടെ കസ്റ്റമേഴ്സൊ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഓക്കെ താങ്ക് യൂ